മുട്ടുവേദന ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവര്ക്കും വളരെ ബുദ്ധിമുട്ട് ഏറിയ ഒരു രോഗ അവസ്ഥ തന്നെയാണ് മുട്ടുവേദന എന്നു പറയുന്നത് മുട്ടുവേദന പല കാരണങ്ങള് കൊണ്ടു തന്നെ നമുക്ക് ഉണ്ടാകുന്നതാണ് കാരണം അമിതമായ ഭാരം ഒരു മനുഷ്യന് ഉണ്ടന്നുണ്ടെങ്കിൽ അത് മുട്ടുവേദനയ്ക്ക് കാരണമാകാറുണ്ട് പിന്നെ തേയ്മാനം മുട്ടുവേദനയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാരണമായി കണ്ടുവരുന്നു പിന്നെ ജീവിതശൈരി രോഗങ്ങളായ കൊളസ്ട്രോള് ഷുഗറ് എന്നീ രോഗങ്ങളുള്ളവര്ക്കും ഈ മുട്ടുവേദന സാധാരണയായി കണ്ടുവരുന്നു എന്നാലും പ്രായമായവരിൽ കണ്ടുവരുന്ന മുട്ടുവേദന കൂടുതലും തേയ്മാനം കൊണ്ടു തന്നെയാണ് വരുന്നതെന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് ഈ മുട്ടുവേദനയ്ക്ക് നമ്മൾ പ്രധാനമായും വരുന്നതിന്റെ തേയ്മാനം മൂലവും ഒക്കെ വരുന്നത് കാല്സ്യത്തിന്റെ കുറവായിട്ടാണ് കണ്ടുവരുന്നത് ഈ കാല്സ്യം അടങ്ങിയ ഭക്ഷണങ്ങള് നമ്മള് തീര്ച്ചയായും ഭക്ഷണത്തിലുള്പ്പെടുത്തേണ്ടതാണ് പാൽ പച്ച ഇലക്കറികള് മുതലായ കാര്യങ്ങളിലൂടെ പിന്നെ ധാന്യങ്ങള് എന്ന് പയർ വര്ഗ്ഗങ്ങള് പയർ വര്ഗ്ഗങ്ങള് എന്നിവയിലൂടെയൊക്കെ ധാരാളം കാല്സ്യം അടങ്ങിയിരിക്കുന്നു പാൽ തൈര് എന്നു മുതലൊക്കെ മുതലായ ഭക്ഷണ സാധനങ്ങളിലും കാല്സ്യം അടങ്ങിയിരിക്കുന്നു ഈ കാല്സ്യമടങ്ങിയ ഭക്ഷണങ്ങള് നമ്മള് ധാരാളം കഴിക്കുന്നതിലൂടെ മുട്ടുവേദന നമ്മൾ ഒരു പരിധിവരെ കുറയ്ക്കാവുന്നതാണ് എക്സര്സൈസ് ചെറു ചെറു ചെറിയ ചെറിയ എക്സര്സൈസൊക്കെ നമുക്ക് ചെയ്യാനുണ്ടാവുന്നത് ചെയ്യേണ്ടതാണ്